കമ്പോളത്തിൽ കാർഷിക ഉല്പന്നങ്ങൾ എത്തിക്കുക എന്നത് കർഷകരെ സംബന്ധിച് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കാരണം ഈ കൃഷികളെല്ലാം ഒട്ടു മിക്ക കൃഷികളും നടക്കുന്നത് ഏതെങ്കിലും ഉള്ളിലോട്ടുള്ള ഭാഗങ്ങളിലാണ് അതായത് ഗ്രാമ പ്രദേശങ്ങളിലാണെങ്കിൽ വണ്ടികളൊന്നും ചെല്ലാത്ത ഒരു കുറച്ച് അധികം ഉള്ളിലോട്ട് ആള്ക്കാര് അധികം താമസം ഇല്ലാത്ത പാർപ്പിടങ്ങളൊന്നും ഇല്ലാത്ത പാർപ്പില്ലാത്ത സ്ഥലത്താണ് കുടുതലും കൃഷികള് ആൾക്കാര് ചെയ്യുന്നത് അത് അങ്ങനെ ചെയ്യുന്നതിനുള്ള കാരണം ഒന്ന് ജല സേചനം ജലത്തിൻ്റെ ഒരു ലഭ്യതക്കനുസരിച്ചാണ് ആളുകൾ അങ്ങനത്തെ ഭാഗങ്ങളിൽ പോയിട്ട് കൃഷി ചെയ്യുന്നത് അവിടെ നിന്ന് കർഷകർക്ക് അതായത് കാർഷിക ഉൽപ്പന്നങ്ങള് ഉണ്ടാക്കിയിട്ടുള്ള ഉൽപന്നങ്ങള് കമ്പോളത്തിൽ എത്തിക്കാൻ അവർക്ക് ബുദ്ധിമുട്ട് തന്നെയാണ് അത് വണ്ടി വിളിച്ചും അല്ലാതെയും എങ്ങനെയെങ്കിലും ഒക്കെ എന്താണ് മാർക്കറ്റിലേക്ക് അതായത് കമ്പോളത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് പിന്നെ ഞങ്ങളുടെ പഞ്ചായത്തില് പറഞ്ഞ ഒരു തിങ്കളാഴ്ച ചന്ത നടന്നു വരുന്നുണ്ട് അതില് ഞങ്ങള് ഞങ്ങളുടെ സാധനങ്ങള് എല്ലാ തിങ്കളാഴ്ചയും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികളും എല്ലാ വിധ സാധനങ്ങളും ഞങ്ങള് എങ്ങനെയെങ്കിലുമൊക്കെ ചന്തയിൽ എത്തിച്ച് കമ്പോളത്തിൽ എത്തിച്ച് വിൽക്കാനായിട്ട് ശ്രമിക്കാറുണ്ട് അതില് തന്നെ മറ്റ് വിദേശി ഇനങ്ങളും ആളുകള് പുറത്ത് നിന്ന് വരുന്ന ആളുകള് മുക്ക് തന്നെ അവിടെ കച്ചവടം ചെയ്യാറുണ്ട് പിന്നെ ഞങ്ങളുടെ വിളകൾ എന്ന് പറയുന്നത് അധികം രാസ വളങ്ങളൊന്നും ഉപയോഗിക്കാതെ നല്ല രീതിയില് ആളുകൾക്ക് കഴിച്ചാല് വിഷമയമില്ലാത്ത രീതിയില് എത്തിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തം ആയതുകൊണ്ട് കുറച്ച് നല്ല രീതിയില് ഞങ്ങള് കൃഷി ചെയ്ത് കഷ്ടപ്പാട് കൂടുതലാണെങ്കിലും നല്ല രീതിയില് കൃഷി ചെയ്ത് ആളുകൾക്ക് എത്തിക്കാൻ ഞങ്ങൾ ശ്രമിക്കാറുണ്ട്